ഞാൻ ഏറ്റവും കൂടുതൽ തയ്ക്കുന്നത് ഇതെന്തെന്ന് വെച്ചാൽ നൈറ്റിയും ചുരിദാറും കുട്ടികളുടെ ഫ്രോക്ക് പിന്നെ പാൻറുകൾ ചുരിദാറിൻ്റെ പാൻറുകൾ പല ടൈപ്പിലുള്ളതുണ്ട് അത് പിന്നെ പട്ടുപാവാടയും ബ്ലൗസും ക്രോപ്പ് ടോപ്പും അംബ്രല്ല സ്കർട്ട് പിന്നെ പല തരത്തിലുള്ള മിഡികൾ അതൊക്കെയാണ് ഞാൻ കൂടുതലും തയ്ക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തയ്ക്കാനായിട്ട് തോന്നിയിട്ടുള്ളത് ചുരിദാറും നൈറ്റിയുമാണ് ചുരിദാറിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് തോന്നാറ് നൈറ്റിയും സാരമില്ലാതെ എനിക്ക് തയ്ക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് കോട്ടൻ തുണികളും പിന്നെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തയ്ക്കാൻ പിന്നെ ഈ തെന്നി പോകുന്ന കുറേ ഇത് സൈസ് തുണികളുണ്ട് ഇപ്പോഴത്തെ ആ തുണികളിൽ ഇത് ഒന്നും ചുരിദാർ തയ്ക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നാറില്ല ഏറ്റവും നല്ലതായിട്ട് പോവുന്നത് കോട്ടൻ തുണികളാണ് അങ്ങനത്തെ സ്മൂത്ത് ആയിട്ടുള്ള തുണികളിലാണ് ഏറ്റവും നല്ല രീതിയിൽ തയ്ക്കാൻ ഇഷ്ടം തോന്നിക്കുന്നത് അങ്ങനത്തെ തുണികളാണ് നമുക്ക് ചൂടിനായാലും ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് കോട്ടൻ തുണികളാണ് അല്ലാത്ത തുണികൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടാറുണ്ട് കോട്ടൻ തുണികളിലാണെങ്കിൽ പോലും ഭയങ്കര ചൂട് ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അനുഭവിക്കാറുണ്ട് മഴയുടെ സീസൺ ആണെങ്കിൽ പോലും ചൂട് നല്ലതായിട്ട് അനുഭവപ്പെടാറുണ്ട് മൂടിക്കിടക്കുന്ന കാലാവസ്ഥകൾ ആ സമയത്തൊക്കെയും ചൂട് നന്നായിട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോഴൊക്കെ പിന്നെ ഈ കോട്ടൻ തുണികൾ ൽ അതും അയവ് ഉള്ള തുണികൾ അയഞ്ഞ് കിടക്കുന്ന ശരീരത്തിനോട് ചേർന്ന് അത് കുറച്ച് അധികം അയഞ്ഞ് കിടക്കുന്ന തുണികൾ ഇടുമ്പോഴാണ് നമുക്ക് കൂടുതലും നല്ലതായിട്ട് തോന്നാറുള്ളത് പിന്നെ ഈ വക കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് തയ്ക്കുമ്പോൾ സ്പീഡ് ഒത്തിരി അധികം നല്ല രീതിയിൽ ഏറ്റവും പെട്ടെന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിന് ഈ ഇപ്പോഴത്തെ ഒരു ടൈമിൽ നല്ല നല്ല മെഷീനുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് സ്പീഡ് കൂട്ടുന്ന വിധത്തിലുള്ള നല്ല രീതിയിലുള്ള മെഷീനുകൾ പല ടൈപ്പ് മോട്ടർ വെച്ചിട്ടുള്ള മെഷീനുകൾ അങ്ങനത്തെ ഒക്കെ നല്ല വേഗം കൂട്ടി തയ്ക്കാൻ പറ്റുന്ന ഒത്തിരി സംഭ ഇത് ഒക്കെ ഉണ്ട് മെഷീനുകൾ ഉണ്ട് പിന്നെ ദുപ്പട്ട രീതിയിൽ എന്തെങ്കിലും ചെ ഉണ്ട് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ തയ്യലിനെ എറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോവുന്ന ഒന്നാണ് നമ്മുടെ കാൽ വെച്ച് ചവിട്ടി ഇത് തയ്ക്കുമ്പോൾ ഇത് സ്പീഡ് കുറവും നമ്മൾ കാൽ വെച്ച് ചവിട്ടി ഒരു രണ്ട് ചുരിദാർ തയ്ക്കുന്ന സമയം കൊണ്ട് മെഷീൻ മോട്ടർ വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ ഒരു നാല് അഞ്ച് ചുരിദാർ വരെ തയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് പിന്നെ ഏറ്റവും നല്ല രീതിയിൽ തയ്ക്കുക എന്നുള്ളതാണ് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം അതിന് ഏറ്റവും നല്ലതായിട്ട് കോട്ടൻ തുണികൾ ഉപയോഗിച്ചൊക്കെ തയ്ക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗ്ഗം